ഒന്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പത് എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച്